ഇന്ത്യയ്ക്ക് അകത്തും അതുപോലെ ഇന്ത്യയ്ക്ക് പുറത്തും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദ്യാഭ്യാസ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ ഹയർസെക്കൻഡറി അതുപോലെ എസ് എൽ സി എസ്എൽസിയിലും അൻപത് ശതമാനം വിജയശതമാനം ഉള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇപ്പം ഇന്ത്യയ്ക്ക് അക ഇന്ത്യയ്ക്ക് അകത്ത് പത്ത് ലക്ഷം രൂപ വരെയും അതുപോലെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് അകത്ത് പിന്നെ നമ്മുടെ ഹൈർ ഹൈർ എജുക്കേഷൻ ഹയർസെക്കൻറ്ററി എജുക്കേഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഗ്രാജുവേഷൻ പോസ്റ്റ്ഗ്രാജുവേഷൻ പി പി എച്ച് ഡി മെക്കാനിക് മാനേജ്മെൻറ് ഡിപ്ലോമ അത് എന്നിങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെ വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നുണ്ട് അത് പോലെ ഇപ്പോൾ പുറത്ത് ഇന്ത്യക്ക് പുറത്താണ് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതെങ്കിൽ അതിനു വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതില് സാധ്യത വളരെ കുറവാണ് ഇപ്പം ഫീയ് ഇപ്പോൾ നമ്മുടെ ഏത് സ്ഥാപനത്തിലാണോ വിദ്യ പഠിക്കാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം എടുക്കാൻ പോകുന്നത് അവിടെയുള്ള ഹോസ്റ്റൽ ഫീ ട്യൂഷൻ ഫീ ലാബ് ഫീ എക്സാം ഫീ ബൂകസിന്റേത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വിദ്യാഭ്യാസ ലോണിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പം നമുക്ക് ഇന്ത്യക്ക് അകത്ത് ഉന്നത വിദ്യാഭ്യാസം കിട്ട ചെയ്യുന്നതെങ്കില് നാല് നാലര ലക്ഷം വരെ നാല് ലക്ഷം വരെ വിദ്യാഭ്യാസ ലോൺ ലഭിക്കും പത്ത് ലക്ഷം വരെ ലഭിക്കുന്നുണ്ട് നാല് ലക്ഷം വരെ എടുക്കുന്ന ആൾക്കാർക്ക് ജാമ്യം അതുപോലെ ഗ്യാരണ്ടിയും ഈടുകൾ ഒന്നും വയ്ക്കണ്ടതില്ല ഇപ്പോൾ നാല് ലക്ഷം മുതൽ ഏഴര ലക്ഷം വരെയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അവരെ ഗ്യാരണ്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിൽക്കേണ്ടതാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് തെർഡ് പാർട്ടി അല്ലെങ്കിൽ പുറത്തുള്ളതാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് എടുക്കുന്നത് എങ്കിൽ ഈഡ് നൽകേണ്ടതാണ് ഒന്നെങ്കിൽ എൽ ഐ സി അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഈട് ആയിട്ട് നൽകേണ്ടതാണ് എന്തെങ്കിലും നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ പേരെൻസിന് എന്തെങ്കിലും ഒരു സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈട് ആയിട്ട് നൽകേണ്ടന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മള് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതെങ്കിൽ അതൊരു ജോയിൻറ് അക്കൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത് വിദ്യാർത്ഥിയും രക്ഷിതാക്കളും തമ്മിൽ ജോയിൻറ് അതുപോലെ ഇപ്പം വിദ്യാർത്ഥി ഇപ്പോൾ കല്യാണം കഴിച്ച ആളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എജുക്കേഷൻ ലോൺ എടുക്കുന്നതെങ്കിൽ അവര് പങ്കാളിയുമായിട്ടുള്ള ഒരു ജോയിൻറ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ചടവ് നടത്തുന്നുണ്ടെങ്കില് അത് വിദ്യാർത്ഥി മാത്രമല്ല ജോയിൻറ് അക്കൗണ്ട് ആപ്ലിക്കന്റ് ആരാണോ ഉള്ളത് അവരും തിരിച്ചടക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പോൾ അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നഴ്സിംഗ് എൻജിനീയർ ആണെങ്കിലും നാല് നാല് നാല് വർഷമാണല്ലോ ഉള്ളത് അപ്പോൾ നാല് വർഷത്തില് ആദ്യത്തെ വർഷത്തിൽ ആദ്യത്തെ ഗഡു കിട്ടും പിന്നീട്പിന്നീട് ആ വർഷം കഴിഞ്ഞതിനു ശേഷമാണ് രണ്ടാമത്തെ ഗഡു കിട്ടുന്നത് അപ്പോൾ വിദ്യാർത്ഥി പഠിച്ചിറങ്ങി ഒരു ജോലി കിട്ടിയ ഒരു ആറുമാസം വരെ തിരിച്ചടവ് നൽകേണ്ടതില്ല എന്നാൽ ആദ്യത്തെ ഗഡു കിട്ടിയത് മുതൽ അതിന്റെ പലിശയും മുതലും അടക്കേ വിദ്യാർഥി അടക്കേണ്ടതായിട്ട് ബാധ്യസ്ഥനാണ് എന്നാൽ എപ്പോഴാണ് വിദ്യാഭ്യാസ ലോൺ എടുത്തത് അതിനു ശേഷം പഠിച്ചിറങ്ങിയശേഷം ഒരു വർഷത്തിനുശേഷമാണ് തിരിച്ചടവ് നൽകേണ്ടത് അതും ഒരു ഇ എം ഐ ആയിട്ടാണ് നൽകേണ്ടത് ഈ തുക എജുക്കേഷൻ ലോൺ എടുത്ത ആ തുക വിദ്യാഭ്യാസം ലോണിന്റെ തുക വിദ്യാർത്ഥിക്ക് അതുപോലെ പാരന്റ്സിനോ കയ്യിൽ അല്ല കൊടുക്കുന്നത് മറിച്ച് വിദ്യാർത്ഥി എവിടെയാണ് ഏത് സ്ഥാപനത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തില് ഡി ഡി ആയിട്ടോ ചെക്ക് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥിയും അതുപോലെ വിദ്യാർഥിയുടെയും പാരന്റ്സിന്റെ ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് പാൻ കാർഡോ ആധാർ കാർഡോ അതുപോലെ വിദ്യാർത്ഥി പഠിച്ച ഹയർ സെക്കൻഡറി അതുപോലെ എസ് സി അൻപത് ശതമാനം വിജയം ശതമാനം മാർക്ക് ലിസ്റ്റ് അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൽ സി അൻപത് ശതമാനം വിജയം ശതമാനം മാർക്ക് ലിസ്റ്റ് അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ഏത് സ്ഥാപനത്തിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള അഡ്മിഷൻ ലെറ്റെറ് അതുപോലെ അവിടെയുള്ള ഫീസ് സ്ട്രക്ചറ് അതൊക്കെ ബാങ്കിന് നൽകേണ്ടതാണ് അതുപോലെ മെറിറ്റ് മെറിറ്റ് മാനേജ്മെൻറ് എന്നും ആ അഡ്മിഷൻ ലെറ്ററിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ ലോണ് കിട്ടുകയുള്ളൂ പിന്നെ എൻറെ അറിവിൽ എൻറെ ഫാമിലി മെമ്പേഴ്സിൽ ചിലരൊക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തതായിട്ട് എനിക്ക് അറിയാം